ആ പറഞ്ഞോളൂ

ആ ഓക്കെ

ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പം അപ്പം മുട്ടക്കറിയും അപ്പം കടലക്കറിയും പുട്ടും കടലക്കറിയും പിന്നെ നെയ്റോസ്റ്റ് എ ടു ഇസഡ് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിങ്ങൾ ഇപ്പം പറയുന്നത് എന്താണോ നമുക്ക് അത് ഉണ്ടാക്കി തരാൻ സാധിക്കുന്നത് ആണ്

മുപ്പത് പേര് അല്ലെ

ആ എല്ലാം നമ്മൾ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു താമസം ഉണ്ടാവും കാരണം നമ്മൾ ഉണ്ടാക്കി വരണല്ലൊ കാരണം ഇത്രയും ആൾക്കാർ ഉണ്ടല്ലോ ആ ഒരു സമയം നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എല്ലാം തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്യുന്നത് ആയിരിക്കും

അടുത്ത ആഴ്ച അല്ലേ അടുത്ത ആഴ്ച ഏതാണ് ഡേറ്റ് ഏതായിരുന്നു

ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ വരുമ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ പിന്നെ അവരോട് ഒന്ന് ജസ്റ്റ് ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ആണ് സാധനങ്ങൾ വേണ്ടതെന്ന് അങ്ങനെ ആണെങ്കിൽ വലിയ താമസം ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ എല്ലം ഉണ്ടാക്കി വെക്കുവ വെച്ചേക്കാം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് വന്നപാടെ കഴിക്കാമല്ലോ ഇപ്പം വിശന്ന് ഇരിന്നിട്ട് നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് അത് കാരണം നിങ്ങൾ ഒന്നാമത് വിശന്ന് വന്ന് ഇരിക്കുന്നു പിന്ന നമ്മൾ ഒന്നും എന്താണ് പറയുക പെട്ടെന്ന് തരാത്ത ഒരു വിഷമവും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും നമുക്കും ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരടിത്ത് ഒക്കെ ജസ്റ്റ് ചോദിക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് എന്നിട്ട് നിങ്ങൾ അത് എനിക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് തന്ന് കഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാം ആ അപ്പം അങ്ങനെ ആണെങ്കില് ഇപ്പം വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഓർഡർ ഓർഡറിന് അനുസരിച്ച് ഞങ്ങൾ ടേബിളിൽ എത്തിച്ചേക്കാം ആ എന്നാൽ അങ്ങനെ ചെയ്തോ എന്നാൽ ഓക്കെ ഓക്കെ സാർ എന്നാൽ അതെ അതെ അതാണ് ബെറ്റർ കുറച്ച് കൂടെ അതെ അതാണ് ഞാനും പറഞ്ഞത് അവരുടെ ഇതും കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി ഞങ്ങളടിത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാം ഓക്കെ ഏകദേശം വലിയ റേറ്റ് ഒന്നും വരില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് ചെയ്യാം മുപ്പത് പേരുടെ എന്തായാലും ഉണ്ടല്ലോ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോ ഓരോ സാധനത്തിനും പല പല റേറ്റ് ആണ് വരുക ഓക്കെ ഓക്കെ പറഞ്ഞുതരാം ഓക്കെ